ഹലോ ആ ഡോക്ടർ അനുപമ മാഡം ആ മാഡം എനിക്ക് ഭയങ്കര തലവേദനയും ജലദോഷവും തൊണ്ടവേദനയൊക്കെയാണ് പനി എന്നാൽ വലുതായിട്ട് ഇല്ല ആ നടുവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ട് ഭയങ്കര ക്ഷീണവും ഒന്നും അല്ല നല്ല രീതിയില് തൊണ്ടവേദന ഒക്കെ ഉണ്ട് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണവും തളർച്ച ഒക്കെ ചെറുതായിട്ട് ശ്വാസം മുട്ടലും ഉണ്ട് മാഡം ആ വേറെ ഒരാഴ്ച മുമ്പ് അമ്മയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്ന് ആ ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ഇങ്ങനെ അസ്വസ്ഥതകളുണ്ട് അമ്മയ്ക്ക് നോർമൽ ആയില്ല നോർമലായി വരണതേ ഉള്ളൂ മാഡം ആ എനിക്ക് എനിക്ക് നല്ല ക്ഷീണം ഒക്കെ ആണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റല് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ കൊറോണ ടൈമ് ആയതുകൊണ്ട് ഹോസ്പിറ്റലില് പോയി ചെക്ക് ചെയ്യുമ്പോൾ ഇനി നെഗറ്റീവ് ആവൂന്ന് പേടി ആയത് കൊണ്ടാണ് ഹോസ്പിറ്റലില് പോവാത്തത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൊറോണ ഇല്ലെങ്കിൽ കൂടി ഹോസ്പിറ്റല് പോയി കിട്ടോണോങ്കിലോന്ന് ഒരു പേടിയും ഉണ്ട് മാഡം

ആ ആ മഞ്ഞപ്പൊടി ഇടേണ്ടി വരുവോ ഡോക്ടർ മഞ്ഞപ്പൊടി ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടോ ആ ഓ ഓ

ആ പാരസെറ്റാമോള് എങ്ങനെയാണ് മാഡം കഴിക്കേണ്ടത് മ് ആ ആ പനി പനി ആയിട്ട് ആ ആ മ് ആ ആ ഓക്കെ ശരി കുഞ്ഞുങ്ങളും ഉണ്ട് പൊടി കുഞ്ഞുവാവ ഉണ്ട് മോന് ആ ആ അഞ്ച് വയസ്സായ മോനുണ്ട് ഒരു വയസ്സ് ആയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുവാവ ഉണ്ട് അതുകൊണ്ട് ആണ് മാഡം പേടി കൊച്ചുങ്ങൾക്കും ചെറിയ ജലദോഷം പോലെ ഉണ്ട് ആ ആ ആ ആ ഓ ഓക്കെ ആ ആ ആ ആ കൊറോണ ആയത് കൊണ്ടാണ് കുഞ്ഞു വാവക്ക് അസുഖം വരുമ്പോൾ പേടി ഹോസ്പിറ്റല് കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ആ ആ ആ ആ ഓക്കെ ആ ഓക്കെ ശരി മാഡം ഓക്കെ ആ താങ്ക്യൂ മാഡം